പാലക്കാട് ജില്ലയെ നോക്കാണെന്നു പറയുമ്പോൾ നമുക്ക് പ്രകൃതിയുമായിട്ടു കൂടുതൽ ഇണങ്ങിച്ചേർന്നൊരു ജില്ല എന്നു വേണമെങ്കിൽ പറയാന് പറ്റും ഒരുപാടു വെള്ളച്ചാട്ടങ്ങൾ മലകൾ ധാതു സമ്പത്തുകൾ അങ്ങനെ നമുക്ക് കൂടുതലായിട്ടും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാന് പറ്റിയൊരു സ്ഥലമാണ് അതായത് കൂടുതൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടു മാത്രമേ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ ജീവിക്കാന് പറ്റുള്ളൂ കൂടുതലായിട്ടുള്ള ഈ വ്യവസായ കേന്ദ്രങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജില്ലയിൽ തുടങ്ങാനുള്ള ഒരു തുടങ്ങുമ്പോൾ തുടങ്ങാനും കുറച്ചു ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ട് എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ലോല പ്രദേശങ്ങൾ മെയിൻ ആയിട്ട് ആണ് അപ്പം നോക്കാണേ പറയുന്നത് നമുക്ക് അത് തുടങ്ങണമെങ്കിൽ അതിന്റേതായിട്ടുള്ള ഓരോ കുറേ അധികം ഇപ്പോൾ വെറേ സ്ഥലത്ത് പത്തു രൂപ ചിലവാക്കേണ്ട സ്ഥലത്താണേ നമ്മുടെ ജില്ലയിൽ അല്ലേ നമ്മുടെ പാലക്കാട് നോക്കുമ്പോൾ ഒരു അമ്പതു രൂപ അങ്ങനെ അതായത് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണിപ്പോൾ അത്രയും ചിലവു കൂടുതലായിരിക്കും കാരണം നമ്മൾ അത്രയും വര്ക്ക് കൂടുതലതില് ചെയ്യേണ്ടി വരും അപ്പം അവിടുത്തെ മണ്ണും കാര്യങ്ങളും ശ്രദ്ധിക്കണം അവിടെ ചെയ്യുമ്പോൾ പ്രതിക് പ്രകൃതിയ്ക്കു ദോഷം വരാത്ത രീതിയില് നമുക്ക് ചെയ്യാന് നോക്കണം അങ്ങനെ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളെ ശ്രദ്ധിച്ച് അതിനെ അധികം ദോഷം ദോഷം വരും എന്തായാലും കുറച്ച് എന്തേലും ദോഷം വരാതിരിക്കില്ല അപ്പോൾ ഒരുപാടു ദോഷം വരാത്ത രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ എന്നാൽ നല്ല രീതിയിൽ ചെയ്യാന് പറ്റുന്ന പോലെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാശിന്റെ അതായത് പൈസയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാടു ചിലവു കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ ജലസമ്പത്തുകൾ നോക്കുകയാണെന്നു പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നദികൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ കാണാന് പറ്റും ഏറ്റവും വലിയ ജല നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി എന്ന് അതായത് ജലം ഉള്ക്കൊള്ളാവുന്ന സംഭരണി നമ്മുടെ മലമ്പുഴ ഡാമാണ് അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള കുറേ ഡാമുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ജലസ്രോതസ്സുകളായിട്ടു നമുക്കു പറയാന് പറ്റും ഭാര ഭാരതപ്പുഴയുണ്ട് പിന്നെ ആളിയാറുണ്ട് പിന്നെ ഷോളയാർ പിന്നെ നമുക്ക് നോക്കുവാണെന്നു പറയുമ്പോൾ കുന്തിപ്പുഴയുണ്ട് തൂതപ്പുഴയുണ്ട് അങ്ങനെ പിന്നെ ഒരോ പ്രദേശങ്ങളിൽ അത് അറിയപ്പെടുന്നത് ചെറിയ ചെറിയ തോടുകളും ആറുകളുമൊക്കെ നമുക്ക് നമ്മുടെ പാലക്കാട് ജില്ലയില് കാണാന് പറ്റും അപ്പം വെള്ളത്തിന്റെ എല്ലാ കാര്യങ്ങള്ക്കും നമുക്ക് സൗകര്യം കൂടുതലാണ് അതുകൊണ്ടു തന്നെ നമുക്കു കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയുക വ്യാവസായികവൽക്കരണം നമുക്കു നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൊണ്ടുവരാന് പറ്റില്ല